മൃഗങ്ങളെ വളർത്താൻ എനിക്ക് താല്പര്യമില്ല കാരണം അവര് വീട് വൃത്തിയാക്കി മീൻസ് നമ്മള് വീടിപ്പോൾ വൃത്തിയായി വെച്ചാലും അവരത് കേടു വരുത്തും നമ്മളിപ്പോൾ ചെടികള് വച്ചേക്കാണെങ്കിൽ അവരത് കേടുവരുത്തും പിന്നെ കുറേ വീട്ടു മുറ്റം ഭിത്തി കേടാക്കും അങ്ങനെയെക്കെ ഉണ്ടാകും എനിക്കിഷ്ടമില്ല